എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട പാചകവിധി എന്തെന്നു വച്ചാൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഏതൊരു ബിരിയാണി തിന്നാലും ഉമ്മ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് എനിക്കൊരു ബിരിയാണിക്കും ഇതുവരെ തോന്നിയിട്ടില്ല എന്താണെന്നറിയില്ല എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഇപ്പോൾ രാവിലെയാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ഏതൊരു സമയത്താണെങ്കിലും അത് തീരുന്നതുവരെ ഞാനതു തന്നെ കഴിച്ചുകൊണ്ടിരിക്കും എനിക്കിത്ര അത് എനിക്കിത്ര ഇഷ്ടം എന്നു വച്ചാൽ ഉമ്മ ഉണ്ടാക്കുന്നത് കൊണ്ടാവാം ഉമ്മാൻ്റെ കൈപ്പുണ്യം വേറൊരാൾക്കും കിട്ടില്ലല്ലോ ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരുപാട് കഴിക്കും തൈരും കൂട്ടി എനിക്ക് അതിൻ്റെ കൂടെ ബിരിയാണീൻ്റെ കൂടെ തൈരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഉമ്മ ഉണ്ടാക്കുന്ന പരിപ്പുവടയും അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്